എനിക്കിഷ്ടപ്പെട്ട ഒരു കലാകാരൻ എന്നു പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ് അദ്ദേഹം പ്രധാനമായും തമിഴ് സിനിമയിലെ പാട്ടുകളാണ് പാടാറുള്ളത് അദ്ദേഹം ഒരു പാട്ടുകാരനും സംഗീത സംവിധായകനും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴുവൻ എനിക്ക് വളരേ അധികം ഇഷ്ടപ്പെടാറുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ഞാൻ സ്ഥിരമായി കേൾക്കാറുണ്ട് ആളുടെ പാട്ടുകൾ തുടർച്ചയായും എനിക്ക് ഇഷ്ടപ്പെട്ടതിനാലാണ് ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായി എനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പാട്ട് ധനുഷിന്റെ കൂടെയുള്ള വയ് ദിസ് കൊലവെറി എന്നൊരു പാട്ട് വളരെയധികം വൈറലായിരുന്നു നാൽപ്പത് ദക്ഷത്തില ദശലക്ഷത്തിലധികം ലൈക്കുകൾ യുറ്റൂബിൽ അദ്ദേഹം നേടുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം വളരെ ഫെയ്മസായി എന്നു പറയുന്ന പറയാൻ സാധിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ കത്തി എന്ന സിന്മ അദ്ദേഹത്തിൻ്റെയല്ല കത്തി എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സെൽഫി പ്പുള്ളെ എന്ന പാട്ട് പിന്നെ പേട്ടയിൽ രജനീകാന്തിൻ്റെ സിനിമയിലുള്ള അദ്ധേഹത്തിൻ്റെ അദ്ധേഹം സംവിദാനം ചെയ്ത പാട്ട് അങ്ങനെ പല പാട്ടുകളും വളരെയധികം ഫെയ്മസാവുകയും വളരെയധികം ഇഷ്ടപ്പെടുകയും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനായി അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട് സ്പോട്ടിഫയ് എന്ന ആപ്പിൽ എല് എല്ലാ വർഷവും അവസാ എല്ലാ വർഷ അവസാനവും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഏത് സംഗീത സംവിധായകൻ്റെയോ അല്ലെങ്കിൽ ഏത് പാട്ടുകാരൻ്റെയോ പാട്ടുകളാണേ കേട്ടത് എന്നു നമുക്ക് കാണാൻ സാധിക്കും മൂന്നു വർഷമായി അടുപ്പിച്ച് എനിക്ക് അനിരുദ്ധ് രവിചന്ദ്രൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ അനിരുദ്ധ് രവിചന്ദ്രാണ് എന്റെ ടോപ് ആർട്ടിസ്റ്റായിട്ട് വന്നിട്ടുള്ളത് അത്രയും എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടുകാരനാണ് അല്ലെങ്കിൽ സംഗീത സംവിധായകനാണ് അനിരുദ്ധ് രവിചന്ദ്രൻ